നാടോടിഗാനങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗാനങ്ങളുണ്ട് നമ്മുടെ നാടോടിഗാനങ്ങള് അതായത് സുജാതാ ദാസ് പാടിയതും ഒരുപാട് നാടോടിഗാനങ്ങളുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ചെല്ലക്കിളിയേ തേരിറങ്ങിവാ എന്നു പറഞ്ഞിട്ടുള്ളൊരു നാടോടിപ്പാട്ട് പിന്നെന്താന്നുവെച്ചിട്ടുണ്ടെങ്കില് പിന്നെ നാടോടിനൃത്തങ്ങളുണ്ട് നമുക്ക് നൃത്തരൂപങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് കലോത്സവത്തിനും കാര്യങ്ങളിലൊക്കെ അതായത് നാടോടിനൃത്തമെന്നു പറഞ്ഞിട്ടുള്ള ഒരു പെർഫോമൻസ് വേറെ തന്നെയുണ്ട് അത് നമുക്ക് പിന്നെ ഒരുപാട് പിന്നെ പ്രൈസ്സ് കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ സ്ക്കൂളുകൾ നമ്മുടെ കലോത്സവത്തില് അതായത് ആർട്ട്സിൻ്റെ സമയത്തതൊക്കെ നാടോടിനൃത്തം അങ്ങനെയുള്ളതൊക്കെയുണ്ടാവും നമുക്ക് പല അതായത് നമ്മള് പല ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ടെങ്കിലും നാടോടിനൃത്തത്തിൽ ആര് ഫസ്റ്റ് വരുന്നോ അവര് ഉപജില്ല ജില്ല സംസ്ഥാനം അങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നൊരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം അതുപോലെ നമുക്ക് അതിനെ പറയാം പിന്നെന്നുവെച്ചിട്ടുണ്ടെങ്കില് നാടോടിനൃത്ത നാടോടിനൃത്ത ഗാനങ്ങളെന്നു വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ പൂവേണോ നല്ല നല്ല പൂമാല അല്ലിമാല മുല്ലമാല പൂമാല അങ്ങനെയൊരുപാട് നൃത്തങ്ങള് അങ്ങനത്തെ ഒരുപാട് പാട്ടുകളുണ്ട് എല്ലാം നല്ല നമുക്ക് കേട്ടോണ്ടിരിക്കാൻ വളരെ സുഖമുള്ളൊരു പാട്ടുകളാണ്